ഞാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു മോനിക്കൊരു ബോഡി ലോഷൻ വേടിക്കണമെന്ന് അങ്ങനെ ഞാൻ ഷോ ഫോണിൽ ഓഡർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഫോണിൽ നോക്കിയപ്പോൾ അതിന് റേറ്റ് കൂടുതലും പിന്നെ ഡെലിവറീൻ്റെ സമയം വൈ നല്ല ലേറ്റും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബന്റിനെയും കൂട്ടി ഞങ്ങൾ ഒരു ദിവസം പുറത്തു പോയി പുറത്തു പോയി അത് ഒരു ഷോപ്പ് കയറിയപ്പോൾ കിട്ടിയില്ല പിന്നെ രണ്ടാമത്തെ ഷോപ്പിൽ കയറിയപ്പോഴാണ് ആ പ്രോഡക്റ്റ് കിട്ടിയത് അങ്ങനെ ആ ലോഷൻ മേടിച്ചു വീട്ടിൽ വന്ന് അവന് പിറ്റേന്നാണ് അവനെ കുളിപ്പിച്ചത് അവനെ കുളിപ്പിച്ച സമയത്ത് ബോഡി ലോഷൻ ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ടാണ് ഉള്ളത് അവൻക്ക് ആണേൽ തന്നെ ഒരു കുറച്ചു മതി ഒരു പ്രെസ്സിനു കിട്ടുന്ന കുറച്ചു ലോഷൻ മതി അവനെ കുളിപ്പിക്കാൻ തന്നെ അവൻ്റെ ദേഹത്തു അപ്ലൈ ചെയ്യാൻ തന്നെ അവന് തേച്ചു കഴിഞ്ഞപ്പോൾത്തന്നെ നല്ലൊരു സ് അവൻക്ക് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടായി രുന്നു അവൻക്കെ അവന് നല്ലൊരു മറ്റാമാണ് ഉണ്ടായിരുന്നത് പിന്നെ ആ അത് ആ ഒരു ബോഡി ലോഷൻ എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞു തന്നത് ഹിമാലയേൻ്റെ ഒരു ലോഷനായിരുന്നു അത് നല്ലൊരു ക്രീമാണ് മോന്ക്ക് അത് തേച്ചപ്പോൾ തന്നെ നല്ലൊരു ഗ്ലൈഡ്നസ്സും നല്ല മേ ദേഹത്തു ഇങ്ങനെ കുരുക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു അത് ഒരാഴ്ച്ച തേച്ചപ്പോൾ തന്നെ ആ കുരുക്കളൊക്കെ നന്നായിട്ട് മാറി പിമ്പിളൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ടുള്ള ബോഡി ആയിട്ട് മാറുകയും ചെയ്തു